ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഋതുവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമുക്ക് തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശിശിരകാലം ആ കാലമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പും അതായത് അതിനനുസരിച്ച് ചൂടും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും അപ്പോൾ അത് നമുക്കൊരു നല്ലതായിട്ട് തോന്നും കാരണം രാത്രി നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലത് ആ ഒരു ടൈമാണ് കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു മുന്നോട്ടൊക്കെയായിട്ടാണ് മാറിയിരിക്കുന്നത് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലഘട്ടങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതായത് മഴക്കാലമായിരിക്കും നമുക്കിപ്പോൾ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് അപ്പം അത് എന്താ പറയുക എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു ഇഷ്ടമില്ലാത്തൊരു ടൈപ്പാണ് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബൈക്കിലാണെങ്കിലും നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിലാണെങ്കിലും ഓക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കുടയും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മുക്കതൊരു ബുദ്ധിമുട്ടൊക്കെയായിട്ടാണ് മാറുക കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടൗണിൽ ഇറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുടുങ്ങിപോകും അതായത് മഴയത്തൊക്കെ നമുക്ക് നടക്കുന്നത് തന്നെ എനിക്കൊരു എന്താ ഒരു വെറുപ്പ് പിടിച്ചൊരു കാര്യമാണ് എനിക്കേറ്റവും ഇഷ്ടം അത് മറ്റേ ശിശിരകാലം തന്നെയാണ് അതാണെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും